എനിക്ക് കൃത്യമായ സ്ഥലങ്ങളിൽ ഇറങ്ങാൻ സാധിക്കുകയും ചെയ്തു ഇദ്ദേഹം നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയതും മറ്റു സ്ഥലങ്ങളില് പുതിയ പുതിയ നഗരം ആയോണ്ട് എനിക്ക് എവിടെയെറങ്ങണ്ടേന്നും അങ്ങനെയോരോ കാര്യങ്ങളറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് കൃത്യമായ സ്ഥലങ്ങളില് റെസ്റ്റ് എടുക്കാനും നല്ല ഫുഡുള്ള സ്ഥലങ്ങളും എല്ലാ ഭാഗത്തും എനിക്ക് എവിടെയാണോ പോണ്ടത് അവിടെ കൃത്യമായ സമയത്ത് പെരുമാറുകയും നല്ല രീതിയിലാണ് ഇദ്ദേഹം എന്നോട് പെരുമാറിയിരിക്കുന്നത് വേറെ മോശമായ രീതിയിലൊന്നും എന്നോട് പെരുമാറിട്ടില്ല എനിക്ക് എവിടെയാ പോണ്ടത് എന്നുവെച്ച അപ്പപ്പോ ആ സ്ഥലത്തു എത്തിക്കുകയും അവിടുന്നുള്ള മറ്റു കാര്യങ്ങളും ഓരോ ഓരോ സ്ഥലത്തു പോകാനുള്ള വഴികളും അങ്ങനെ ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് പെട്ടന്നന്നെ എത്തിക്കാനും അതുപോലെ വേണ്ട സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള ഫുഡുള്ള സ്ഥലങ്ങളിലും മെയിനായിട്ട് കൊണ്ടോയി

വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയത്തു ഇത്രേം ഫുൾ പ്ലാനിങ്ങോടെ ആണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് പെട്ടന്ന് പെട്ടന്ന് വേഗത്തില് എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ പെട്ടന്ന് എത്തിച്ചിരുന്നു എന്നെ മറ്റു പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നീട്ടില്ല ഗുഡാണ് പിന്നെ ഇയ്യാൾക്ക് റിവ്യൂ കൊടുക്കു ഒരു റിവ്യൂ ആയിട്ടു കൊടുക്കുവാണെങ്കി ഞാൻ നല്ലൊരു ഇതു കൊടുത്തേനെ നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ബാക്കിയുള്ളോര് ഇപ്പത്തെ കാലങ്ങളില് ബാക്കിയുള്ളോര് ചെയ്യുന്നപോലെ അല്ല ഡ്രൈവർമാര് ചെയ്യുന്നപോലെയല്ല ഇദ്ദേഹം എല്ലാ രീതികളോടും സഹകരിച്ചു എല്ലാത്തിനും എനിക്ക് ആവശ്യുള്ള രീതിയിലെല്ലാം ചെയ്തു തരുകയും എല്ലാം ചെയ്തുതരുന്നു